മത്സ്യബന്ധനത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മത്സ്യ തൊഴിലാളികൾ പുറം കടലിൽ പോയി മീൻ പിടുത്തം നടത്തി തിരിച്ചു കൊണ്ട് വരുന്ന മത്സ്യങ്ങൾ ചന്തയിലൊക്കെ വിൽക്കാൻ വയ്ക്കുമ്പോൾ ബാക്കി വരുന്ന ചീഞ്ഞ മത്സ്യ മത്സ്യങ്ങളുടെ വേസ്റ്റ് അതായത് അതിൻ്റെ വേണ്ടാത്ത കാര്യങ്ങൾ

കടലിൽ തന്നെ കൊണ്ട് പോയി തട്ടുന്ന കൊണ്ട് പോയി ഇടുന്ന ഒരു അവസ്ഥ കാണാനിടയായിട്ടുണ്ട് പലപ്പോഴും കടപ്പുറത്തൊക്കെ പോവുമ്പോൾ മാർക്കറ്റ് മീൻ മാർക്കറ്റിൻ്റെ അടുത്തൊക്കെ വളരെ ദുർഗന്ധം പിടിച്ച ഒരു മണമുണ്ടാകാറുണ്ട് ഇതൊരു വല്ലാത്തൊരു പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ് കടലിൽ കൊണ്ട് പോയി ഇങ്ങനെ വേസ്റ്റ് തട്ടുന്നതും മീനിൻ്റെ വേസ്റ്റ് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതും കടലിനും നമ്മുടെ പരിസ്ഥിതിക്കും വളരെ ദോഷ്ടം ദോഷം ചെയ്യുന്ന ഒന്നാണ് ഇത് ഇത് സംബന്ധിച്ച് ജലം മലിനീകര മലിനീകരിക്കപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മലിനീകരിക്കപ്പെടും എന്ന് തന്നെ വേണം പറയാൻ ഇങ്ങനെയുള്ള ജനമൽ ജലമലിനീകരണങ്ങൾ കാരണം കടൽ വളരെ വൃത്തി ഹീനമായി കാണാൻ ഇടയായിട്ടുണ്ട് ഇതൊരു തീർച്ചയായും ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ കാരണമാണ്